അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡ് കാരണം എല്ലാവരും ഐസൊലേഷനിലായി അപ്പം തുടക്കത്തിൽ വേറെ പണി ഒന്നും ചെയ്യാൻ മെലാത്തോണ്ട് ബോറടിക്കാൻ തുടങ്ങി ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് പുറത്തായോണ്ട് ഞാനും ചേട്ടനും ഉള്ളായിരുന്നു പിന്നെ അങ്കിളും അപ്പം കുറച്ച് ദിവസം പോയി കഴിയുമ്പം ബോറടിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തേലും ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കാം അപ്പം അതിൽ കൂടുതലായിട്ട് ഞങ്ങൾ പുള്ളി അന്വേഷിച്ചപ്പം കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് ബോഡ് ഗെയിംസായിട്ട് വാങ്ങിക്കുന്നത് ചെസ്സും ക്യാരമ്മും ടേബിൾ ടെന്നീസെക്കെയാന്നാണ് കേട്ടത് അപ്പം നമ്മൾ വീണ്ടും വിചാരിച്ച് ആദ്യം ചെറുത് ഒന്ന് തുടങ്ങിയിട്ട് ചെസ്സ് ചെസ്സ് മേടിക്കാം എന്ന് വിചാരിച്ചു അപ്പം പുറത്ത് പോവാൻ പാടില്ലാത്തത് കൊണ്ട് ഇത് ഓൺലൈൻ ഓർഡറ് ചെയ്ത് അപ്പം അത് വരാൻ കുറച്ച് ദിവസം എടുക്കും അത് വന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ കൂടുതൽ ചെസ് എങ്ങനെ കളിക്കണം എന്ന് കാണാൻ തുടങ്ങി അങ്ങനെ പതുക്കെ അതിൽ കളിക്കാൻ കളിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെ കളിക്കുന്നത് മനസ്സിലായി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങാന്ന് അനൗൺസ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ കുറച്ച് സമയം കുറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെസ്സ് ഒരു നല്ലോണം ചിന്തിക്കുന്ന ഗെയിം ആയത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല വേറെ ടൈപ്പ് ഓഫ് ബോർഡ് ഗെയിം വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വന്നത് ക്യാരം ക്യാരം ക്യാരംസാണ് അപ്പം പോയി ക്യാരംസിന്റെ ബോർഡ് വാങ്ങിക്കാനും കുറച്ച് പാടുണ്ടെന്ന് ക്യാരംസിന് ബോർഡ് കുറച്ച് വലിപ്പം ആയത് കൊണ്ട് ഓർഡർ ചെയ്യാൻ പാടായിരുന്നു അപ്പം അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ ക്യാരം ബോർഡുണ്ടായിരുന്നു പക്ഷേ ക്യാരം കോയിനില്ലായിരുന്നു അപ്പം ഞങ്ങള് ക്യാരം കോയിൻ വാങ്ങാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഓൺലൈൻ വാങ്ങിച്ചു ആ സമയത്ത് വരാൻ കുറച്ച് സമയം എടുക്കും ബിക്കോസ് കോവിഡ് കുറച്ച് പീക്കായി അപ്പം അങ്ങനെ ഞങ്ങൾ ക്യാരം കോയിൻ ഓർഡർ ചെയ്ത് അത് വന്നപ്പം ഞങ്ങൾ യൂഷ്വലി അത് കളിച്ചോണ്ടിരുന്നത് രാത്രി കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കളിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളീ വാ ബോ ഇൻഡോർ ഗെയിംസ് കളിച്ച് നമ്മുടെ സമയം കളിച്ച് ആ സമയം ഒഴിവാക്കി പിന്നെ ഇത് കാരണം ഈ ബോഡിയംസെക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രേം ബോറടിച്ചില്ല അല്ലേ പിന്നെ ഈ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു എങ്കിൽ അതിൽ കൂടുതൽ ബോറടിച്ചേനെ